വാട്ട് എവരി ബോഡി ഈസ് സേയിങ് അൻ എക്സ് എഫ് ബി ഐ ഏജൻറ്റ് ബൈ ജോ നവാരോ ഇതാണെൻ്റെ പ്രിയപ്പെട്ട ലേഖനം എഴുത്തുകാരൻ ബോഡി ലാങ്വേജ് എക്സ്പ്പേട്ട് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇതിൽ പരാമർശിക്കുന്നത് ഇതു വളരെ ഇൻട്രസ്റ്റിങ്ങായിട്ടുള്ളൊരു ബുക്കാണ് അതിനു കാരണം ഇതില് മനുഷ്യൻ്റെ കമ്മ്യൂണിക്കേഷൻ അത് ഒരു എൺപതു ശതമാനവും നടക്കുന്നത് ശാരീരിക ഭാഷ വച്ചിട്ടാണ് അപ്പോള് ശാരീരിക ഭാഷ മനസ്സിലായാൽ മന്ഷ്യനെന്താണുദ്ദേശിക്കുന്നത് എന്നുള്ളതു വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതില് വളരെ ഇൻട്രസ്റ്റിങ്ങായിട്ട് കുറേ കാര്യങ്ങള് ഓരോ നമ്മുടെ ബോഡി മൂമെൻറ്റിനനുസരിച്ചുള്ള ഓരോ കാര്യങ്ങളേക്കുറിച്ച് ഈ ലേഖകൻ സംസാരിക്കുന്നുണ്ട് നമ്മുടെ കൈകളുടെ പൊസിഷൻ നമ്മളൊരാളോടു സംസാരിക്കുന്ന രീതി അതുവഴി നമ്മളെങ്ങനെയാണോ നമ്മുടെ കാര്യങ്ങളെങ്ങനെയാണ് നമ്മള് മറ്റൊരാളോടു കമ്മ്യൂണിക്കേറ്റേയ്യുന്നത് നമ്മൾ സംസാരത്തിൽ കള്ളങ്ങൾ പറഞ്ഞാലും നമ്മുടെ ശരീരമൊരിക്കലും ആ കള്ളത്തിനോടു യോജിച്ചുനില്ക്കില്ല എന്താണോ ഉള്ളിലുള്ളത് അത് ബോഡി ലാങ്വേജ് വഴി പുറത്തു വരും എന്നുള്ളതാണ് ഇതിൻ്റെ സാരാംശം ഇതൊരു അമേരിക്കൻ കുറ്റാന്വേഷണ ഏജൻസിയായ എഫ് ബി ഐ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിലെ ബോഡി ലാങ്വേജെക്സ്പ്പേട്ടായ ജോ നവാരോ എന്നു പറയുന്ന ഉദ്യോഗസ്ഥൻ അയാളുടെ അനുഭവങ്ങളിൽ നിന്ന് അയാളുടെ സർവീസ് സ്റ്റോറി അനുഭവങ്ങളിൽനിന്ന് എഴുതിയൊരു ബുക്കാണ് അപ്പോള് അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നമ്മളൊരാളുമായിട്ടു സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കാലുകളുടെ പാദം ആ പേഴ്സനു നേരെയാണിരിക്കുന്നതെങ്കില് ആ വ്യക്തി ആ സംസാരത്തോട് താല്പര്യമുള്ളതാണെന്നും അല്ലാ എന്നൊണ്ടെങ്കില് ആ വ്യക്തി നമ്മളെ കേൾക്കുന്നുണ്ടെങ്കി ആ സംസാരത്തെ നമ്മൾ സംസാരിക്കുന്ന സംസാരത്തോടു താൽപര്യമില്ല എന്നും നമുക്ക് ഇതിൽനിന്ന് മനസ്സിലാക്കാനായിട്ടു പറ്റും അതൊരു തരത്തിലുള്ള ബോഡി ലാങ്വേജ് ആളുകളെ മനസ്സിലാക്കാനുള്ളൊരു ബോഡി ലാങ്വേജ് ടെക്നിക്കാണ് ഇതേ കാര്യം തന്നെ നമുക്ക് കോൺഫിഡൻസ് ഒരു വ്യക്തിക്ക് കോൺഫിഡൻസുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ആത്മവിശ്വാസമെന്ന് ഉള്ളതെന്ന കാര്യം എങ്ങനെ നമുക്ക് ബോഡി ലാങ്വേജിൽ നിന്ന് മനസ്സിലാക്കാം ഇതിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ആംസ് നമ്മുടെ കൈകള് എപ്പോഴും നമ്മുടെ അപ്ഡോമനു മുകളിലും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിനു താഴെയും ആണെങ്കിൽ ആ രീതിയിലായിരിക്കണം കോൺഫിഡൻസുള്ള വ്യക്തി നമ്മളോടു സംസാരിക്കുന്നത് അതുപോലെ തന്നെ കള്ളം പറയുന്ന വ്യക്തികള് കണ്ണിൻ ഇടത് സൈഡിലേക്ക് കണ്ണിൻ്റെ ഇടത് സൈഡ് നമ്മളൊരു കോണിച്ചൊരു നോട്ടം നോക്കും അതാണ് ഒരെൺപത് ശതമാനമാളുകളും നൂണ പറയുന്നുണ്ടെന്നു നമുക്കു മനസ്സിലാക്കാന് പറ്റുന്ന ഒരു കാര്യമെന്നാണ് ഈ ലോകപ്രശസ്തനായ ഈ എഫ് ബി ഐ ഏജന്റ് തൻ്റെ ബുക്കിലൂടെ വെളിപ്പെടുത്തുന്നത് അതുപോലെതന്നെ ക്രോസ്സാംസ് ക്രോസ് ലെഗ്സ്സ് ഇതൊക്കെ അതുപോലെതന്നെ നമ്മുടെ ടോർസോ നമ്മുടെ ടോർസോെയെ നമ്മള് പ്രൊട്ടക്റ്റേയ്തോ അതുപോലെ ജെനെറ്റ്രയൽ നമ്മൾ പ്രൊട്ടക്റ്റെയ്യുക ഇതൊക്കെ നമ്മള് ചെയ്യുമ്പോള് നമുക്ക് എന്തോ ഒരു കാര്യം മറയ്ക്കാൻ വേണ്ടിയിട്ടാണിത് ചെയ്യുന്നത് എന്നാണ് ബോഡീ ലാങ്വേജെക്സ്പ്പേട്ട് സംസാരിക്കുന്നത് അതുപോലെതന്നെ എന്തൊരു കാര്യം നമ്മള് ചെയ്യുമ്പോഴും നമുക്കു മൂന്നു രീതിയിലാണ് നമ്മള് അതിനെ റിയാക്റ്റേയ്യുന്നത് ഒന്ന് ഫ്ലൈറ്റ് മോഡ് രണ്ട് ഫ്ളൈറ്റ് മോഡ് മൂന്നാമത്തത് നമ്മള് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനോണ്ടിരിക്കുന്ന മോഡുകള് ഈ മൂന്ന് മോഡുകളനുസരിച്ചാണു നമ്മള് ഒരു കാര്യത്തോട് നമ്മള് റിയാക്റ്റെയ്യുക ഒന്നെങ്കിൽ നമ്മള് ഫ്രീസായിട്ടിരിക്കും അല്ലെങ്കില് നമ്മളോ അതിനെ നമ്മള് ഫ്ലൈ ചെയ്യും ഇല്ലെന്നുണ്ടെങ്കില് നമ്മളതിനെതിരെ ഫൈറ്റേയ്യും ഈ മൂന്നു രീതിയിലാണ് നമ്മളൊരു ഏതെങ്കിലുമൊരു സാധാരണ ചോദ്യത്തെ നമ്മള് എന്തു ചെയ്യുക നമ്മള് അഭിമുഖീകരിക്കുക എന്നതാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞുവയ്ക്കുന്നത് വളരെ ഇൻട്രസ്റ്റിങ്ങായിട്ടുള്ള ബുക്കാണ് ഇത് കുറ്റാന്വേഷണ അതായത് പ്രതികൾ പ്രതികളായിട്ടുള്ള ആളുകളൊരിക്കലും അവരുടെ സത്യം തുറന്നു പറയുകേലാ അപ്പോൾ ഈ ബോഡി ലാങ്വേജ് ബോഡിയുടെ ചലനങ്ങൾ വളരെ വ്യക്തമായി നിരീക്ഷിച്ചുകൊണ്ട് ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതു വളരെ വ്യക്തമായി മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളീ ഈ ഈ പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ടും സാധിക്കും അതുപോലെ തന്നെ നമ്മള് ഒരാൾക്ക് കൊടുക്കുന്ന ഷേയ്ക്കാൻറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഐക്കോണ്ടാക്റ്റ് നമ്മളൊരാളോടു സംസാരിക്കുമ്പോൾ ഉള്ള ഐക്കോണ്ടാക്റ്റ് ഇതൊക്കെ ഇതിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്